ഹലോ സ്വിഗ്ഗി അല്ലേ ഞാനൊരു ഒരു മണിക്കൂർ മുമ്പൊരു പതിനഞ്ച് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി ഈ നേരമായിട്ടും ഫുഡ് എത്തിയിട്ടില്ല അപ്പോ അതെന്താണ് കാരണം ഇനിയും വൈകിയേച്ചച്ചാൽ ഇവിടെ കുറെ ഗസ്റ്റ് ഒക്കെയുണ്ട് ഞങ്ങളിവിടെ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഫുഡ് എത്താൻ എത്ര നേരമാവും എന്താണ് പ്രശ്നം അതേലും പറയാൻ പറ്റുമോ ഞങ്ങളിവിടെ ഒരു പത്ത് പതിനഞ്ച് പേര് വെയിറ്റിംഗ് ആണ് ഫുഡിന് വേണ്ടിയിട്ട് ഫുഡ് വന്നാലേ നമുക്ക് ഗസ്റ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇപ്പോ ഒരു മണിക്കൂറ് കഴിഞ്ഞു ഇനി എത്ര നേരായിട്ടും ഫുഡ് വന്നിട്ടില്ല വിളിച്ചപ്പോൾ പറഞ്ഞത് അരമണിക്കൂറ് കൊണ്ടെത്തുംന്നാണ് ഇപ്പോൾ സമയം ഒരു മണിയായി ഇനി ഒരു പത്ത് കൂടിയേ ഞാൻ നോക്കൂള്ളൂ അത് കഴിഞ്ഞ വന്നില്ലെങ്കിൽ വേറെ വല്ലതും ഞങ്ങൾ ട്രൈ ചെയ്യാം എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയ്